ഞാൻ പൂന്തോട്ട പരിപാലനം നടത്തുന്നത് മുറ്റത്തും ടെറസിലുമുണ്ട് എനിക്ക് ധാരാളം പൂച്ചെടികളുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ചെടികൾ ഞാൻ മുറ്റത്തും ബാക്കി ചെറിയ ചെടികള് എല്ലാം മുറ്റത്തും ബാക്കി എല്ലാം ടെറസ്സിൻ്റെ മോളിലുമാണ് വയ്ക്കുന്നത് ടെറസിൻ്റെ മോളിൽ എനിക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് എൻ്റെ ചെടികളെല്ലാം വളരെയധികം നന്നായി വളരുന്നുമുണ്ട് അതിലെല്ലാം ധാരാളം പൂക്കളും വരുന്നുണ്ട് മുറ്റത്തുള്ളതാണെങ്കിൽ ചെറിയ കുഞ്ഞ് ചെടികളെ മാത്രമേ ഞാൻ മുറ്റത്ത് വയ്ക്കാറുള്ളൂ വലിയ ചെടികളെല്ലാം ടെറസിലാണ് മുറ്റത്ത് വച്ചാൽ വലിയ ചെടികളെല്ലാം മുറ്റത്ത് വച്ചാൽ അത് സൂര്യപ്രകാശം ലഭിക്കുന്നതുമില്ല മാത്രമല്ല അതെല്ലാം വളർന്ന് വലുതായാൽ എൻ്റെ വീടിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുഞ്ഞ് കുഞ്ഞ് റോസാ ചെടികള് അതുപോലെ ടേബിൾ റോസ് മുതലായവയെല്ലാം ഞാൻ മുറ്റത്താണ് നടുന്നത് അതേ സമയം വലിയ വലിയ ചെമ്പരത്തികൾ ചേഞ്ച് ഇൻ റോസ് അങ്ങനെയുള്ള വലിയ വലിയ ചെടികളെല്ലാം ടെറസ്സിൻ്റെ മോളിലും വയ്ക്കുന്നു എനിക്ക് രൺ മുറ്റത്തും ടെറസിലും ചെടികൾ ധാരാളമായി വളർത്തുന്നത് കൊണ്ട് എനിക്ക് രണ്ടിൽ നിന്നും പൂക്കൾ ധാരാളം ലഭിക്കുന്നുമുണ്ട്